പറയാം എൻ്റെ നാട്ടിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് പാർപ്പിട നിർമ്മാണം ബന്ധപ്പെട്ട ജോലിയാണ് യുവാക്കൾ അധികവും അതിൻ്റെത്ത് ആണ് ചെയ്യുന്നത് പിന്നെ കൂടുതലായിട്ടും പഠിച്ചവരുണ്ടാവൂലേ ഇപ്പം ഡിഗ്രിയൊക്കെ എടുത്തവർ അവർ ഡിഗ്രിയുള്ളത് കൊണ്ടാണോ പഠനമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല നാട്ടിൽ പാർപ്പിട നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട പല ജോലികളും ഉണ്ടെങ്കിലും അവർ ആരും അത് ചെയ്യാനും അങ്ങനെ സന്നജ സന്നദ്ധരാവാറില്ല അവർ കൂടുതലും അതിനു സമാന്തരമായ മറ്റ് ജോലികൾ തന്നെ നാട്ടിൽ നിന്ന് പുറം നാട്ടിലേക്ക് പോയിട്ട് അതായിപ്പം സിറ്റികളിൽ അങ്ങനെ ഒക്കെ പോയിട്ട് ചെയ്യുന്നതാണ് കാണാറ് പിന്നെ അതേ പോലെ തന്നെ പഠനം ഉണ്ടെങ്കിലും പിന്നെ ഗവണ്മെൻറ്റ് ജോലിയൊന്നും ഇല്ല ചെയ്യാത്തവർ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യും പക്ഷേ വളരെ ചുരുക്കം കുറച്ച് പേരും പിന്നെ ചുരുക്കം കുറച്ച് പേരൊന്നും ഇല്ല അപൂർവ്വം എണ്ണത്തിൽ പറയാവുന്ന പേര് മാത്രം ഈ ഗ്രാമീണ മേഖലയിൽ കാണുന്ന നിർമ്മാണം പിന്നെ കൃഷി കെട്ടിട നിർമ്മാണമായി ബന്ധപ്പെട്ട ജോലികൾ അതിലൊക്കെ ഏർപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് പിന്നെ തൊഴിലില്ലായ്മ കുറവ് ഉണ്ട് പക്ഷേ ഇല്ല എന്നും പറയാം ഒരു സമയത്ത് കേരളത്തിൻ്റെ ഏറ്റവും ഔദ്യോഗിക വരുമാനം എന്ന് പറയുന്ന എന്താണ് കെട്ടിട നിർമ്മാണം അപ്പോൾ കെട്ടിട നിർമ്മാണം എന്നുള്ളത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊരു ലോങ്ങ് ടെം തൊഴിൽ മേഖലയല്ല അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് യുവാക്കൾ പലരും വില്ലേജ് തലത്തിൽ ജീവിക്കുന്നവർ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ വരുന്ന കാലഘട്ടങ്ങളിൽ നേരിടാനുള്ള സാധ്യത കൂടുതലാണ് അത് മുന്നിൽ കണ്ട് കൊണ്ട് തന്നെ കുറേ പേർ രാജ്യം വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട് അവർ കൂടുതലും ചെയ്യുന്ന ജോലികൾ തന്നെ നിർമ്മാണ ശാലകളും പാർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ തന്നെ ആണെങ്കിലും അതേ ജോലി പുറം രാജ്യങ്ങളിൽ തേടി ചെയ്യുന്ന പതിവ് കാണാറുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ഗ്രാമീണമേഖലയിൽ തന്നെ ഉള്ള ഗവണ്മെൻറ്റ് തസ്തികകളിലേക്ക് ഗ്രാമത്തിലെ ആളുകൾ ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ല ആ ഗവണ്മെൻറ്റ് തസ്തികകളിലേക്ക് ഗ്രാമത്തിൻ്റെ പുറത്ത് നിന്നുള്ള മറ്റ് പലരും വന്ന് ജോലി ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത് ഗവണ്മെൻ്റിൻ്റെ ഒരു എന്താണ് പറയുക അവർ മൊത്തമായിട്ട് എല്ലാവരെയും ഒന്നിച്ച് ചേർത്തി ജോലി തൊഴിൽ വിതരണം നടത്തുന്നതിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത് അതായത് വില്ലേജിലെ ആളുകൾക്ക് തന്നെ അതാതു സ്ഥലത്തുള്ള തൊഴിൽ വേക്കൻസി കിട്ടുന്ന രീതിയിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ വിതരണം നടത്തുന്നുണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ പൊതുവെ അങ്ങനെ കാണുന്നില്ല മറ്റൊരു കാര്യം പറയണം എന്ന് വച്ചാൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തൊഴിലില്ലായ്മ പ്രശ്നം സ്ഥിര വരുമാനത്തോടെയുള്ള തൊഴിലില്ലായ്മ അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ സർക്കാർ ജോലിയാണെങ്കിൽ തന്നെ കൃത്യമായ വേതനം ലഭിക്കാത്ത സാഹചര്യങ്ങളും ഇപ്പോൾ കേട്ടു വരുന്നുണ്ട് അതിനാൽത്തന്നെ കേന്ദ്രഗവണ്മെൻ്റിൻ്റെ കീഴിലുള്ള തൊഴിൽ സ്വീകരിക്കുന്ന യുവാക്കളാണ് കൂടുതലായിട്ടും കാണുന്നത് ആർമി പോലുള്ള പെട്ടെന്ന് ജോലി കിട്ടുന്ന സർക്കാർ സേവനങ്ങളിലേക്ക് ആളുകൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പോലീസ് സർവ്വീസ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്തിരുന്നാലും വിദ്യാഭ്യാസമുള്ളവരും സ്ഥിര വരുമാനമുള്ള തൊഴിൽ നേടിയെടുക്കുന്നതിൽ വളരെ നിരാശരായി ഇരിക്കുന്ന സാഹചര്യം വ്യാപകമായി കാണുന്നു നന്ദി നമസ്ക്കാരം